പലതരം നെല്ലുകളുണ്ട് അതില് പലതും പല രീതിയിലാണ് വർഷത്തിലൊക്കെ ഉണ്ടാകുന്ന അരികളുടെ പേരാണ് ഇപ്പോള് പറയാൻ പോകുന്നത് ജ്യോതി ശബരി ഭാരതി സുവർണ്ണമോടൻ സ്വർണ്ണപ്രഭ രശ്മി ത്രിവേണി മട്ട ജയന്തി നീരജ നിള കൈരളി കാഞ്ചന ആതിര ഐശ്വര്യ മംഗളമശ്വലി പവിഴം ആശ ഭദ്ര കാർത്തിക അരുണ രേവതി ഭാഗ്യ ഓണം ധന്യ ഇതൊക്കെയുണ്ടാകുന്നത് വർഷത്തിലാണ് ഇപ്പോള് പറയപ്പെട്ട അരികളൊക്കെയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുണ്ടായതാണ് ഇതില് നെല്ല് തേങ്ങ പച്ചക്കറികള് കുരുമുളക് ജാതിക്ക കശുമാവ് എള്ള് കരിമ്പ് കിഴങ്ങുവര്ഗ വിളകള് പയര് കൊക്കോ മറ്റ് വിളകള് എന്നിവയില് സർവകലാശാല ഇനി ഇനിപ്പറയുന്ന മെച്ചപ്പെടുത്തിയ ഇനങ്ങള് പുറത്തിറക്കി രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള പട്ടികയാണ് നമ്മളിപ്പോള് വായിച്ചത് അതില് വർഷത്തില് കായ്ക്കുന്ന നെല്ലുകളുണ്ട് മാസങ്ങളില് പിന്നെ ഇത്ര വർഷങ്ങള് കൂടുമ്പോള് ഉണ്ടാകുന്ന അരികളും വിലകൂടിയ ഇനങ്ങള് വിലകുറഞ്ഞ ഇനങ്ങള് സാധാ അരികള് റേഷനരികള് പോലത്തെയൊക്കെയുണ്ട് പലതും പല രീതിയിലും പല ടേസ്റ്റിലുമാണ് അരികളൊക്കെ ഇറങ്ങുന്നത് പല നാടുകളിലുമായിട്ടാണ് ഇതുണ്ടാക്കുന്നത്